നമ്മുടെ വീട്ടിലെ പൂന്തോട്ടം പരിപാലിക്കുക എന്ന് വച്ചാൽ വളരേ ചിലവേറിയ ഒരു കാര്യമാണ് അതിൻ്റെ ഒരു കാരണമെന്ന് വച്ചാൽ ഇപ്പം നമ്മളൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമുക്ക് പോയിട്ടു വന്നിട്ടു വേണം അതിന് പരിപാലനം കൊടുക്കാൻ വേണ്ടി അതായത് ഇപ്പം നമുക്ക് രാവിലെ കുറച്ചു സമയം മാത്രമേ അതിൻ്റെ കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളു അതുപോലെ തന്നെ വൈകുന്നേരവും കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളു പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇത് മൊത്തം ക്ലീൻ ചെയ്യുകയും അതിന് വളവിടുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ ചിലവെന്ന് വച്ചാൽ നമുക്ക് വളം വളം കിട്ടുക എന്ന് വച്ചാൽ നമ്മൾ പിന്നെ ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് അതായത് കോഴിയുടെ കോഴിയുടെ വേയ്സ്റ്റ് അതുപോലെ പിന്നെ പശുവിൻ്റെ ചാണകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്നതെന്ന് വച്ചാൽ എല്ലുപൊടി വാങ്ങാറുണ്ട് പിന്നെ വേപ്പിൻ പിണ്ണാക്ക് മേടിക്കും വേപ്പിൻ പിണ്ണാക്കെന്ന് വച്ചാൽ നമുക്ക് കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വളരെ നല്ലതാണ് അതൊരു കിലോയ്ക്ക് എങ്ങനെ ആയാലും നാൽപ്പത് രൂപയാണ് ഇപ്പം നമ്മളിപ്പം ഈസ് അത് മേടിയ്ക്കാൻ വേണ്ടി ഒരു ദിവസം ആയിരിക്കും പ്ലാൻ ചെയ്തു പോകുന്നത് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ അടുത്തുള്ള ഏരിയയിലൊന്നും നമുക്ക് കിട്ടത്തില്ല നമ്മൾ ഒരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത് പിന്നെ ടൗൺ ഏര്യയിലേക്ക് ഒക്കെ പോയാൽ മാത്രമേ നമുക്ക് ഇത് മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ചിലവുണ്ട് പിന്നെ ഈ ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപ കണക്കിൽ എല്ലുപൊടിക്ക് ഒരു കിലോ നാൽപ്പത് രൂപ അത്പോലെ വേപ്പിൻ പിണ്ണാക്കും നാൽപ്പത് രൂപയാണ് അപ്പം നമ്മൾ എങ്ങനെ ആയാലും ഒരു രണ്ടാഴ്ചത്തേക്ക് ഉപയോഗിക്കും ഒരു കിലോ ആയിട്ട് മേടിക്കാൻ നമുക്ക് പറ്റത്തില്ല ഒരു മൂന്ന് നാല് കിലോ വച്ച് മേടിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച്ചത്തേക്ക് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അത് പോലെ ചാണകം നമുക്ക് പശു വീട്ടിലില്ലാത്തതു കൊണ്ട് ചാണകം നമ്മൾ വിലയ്ക്ക് മേടിക്കുവാണ് ചാണകം വിലയ്ക്ക് മേടിക്കുക എന്ന് വച്ചാൽ ഒരു ചാക്കിന് ഇരുനൂറ് രൂപയാണ് റേയ്റ്റ് പറയുന്നത് അപ്പം നമുക്ക് തന്നെ അത് കൊണ്ടു വരാൻ ബുദ്ധിമുട്ടാണ് അപ്പം അത് ഒരു ട്രോളിയിൽ കൊണ്ട് എടുത്ത് കൊണ്ട് വരണം അപ്പം ട്രോളി നമ്മൾ വാടകയ്ക്കെടുക്കണം അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒരാളെ വയ്ക്കണം ഇപ്പം നമുക്ക് ഇത് ഈ ആൾക്ക് കൊടുക്കുന്ന പൈസയും പിന്നെ ചാണകത്തിൻ്റെ പൈസയും ഇപ്പം ട്രോളിയുടെ വാടകയും കൂടി ആകുമ്പം നമുക്ക് അതിൽ ഒരു ചിലവുണ്ട് പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ഇത്രയൊക്കെ ചിലവാക്കിയാലും നമുക്ക് വിഷമയമില്ലാത്ത പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും എന്നത് ഒരു വലിയ കാര്യമാണ് അതുപോലെ തന്നെ വിഷമയമില്ലാത്തത് ഉപയോഗിക്കുന്നതിനോട് ഒപ്പം തന്നെ നമ്മൾക്ക് ഒരു പച്ചപ്പ് നമ്മുടെ അടുക്കളയുടെ മുറ്റത്താണേലും വീടിൻ്റെ വാതിൽക്കലാണെങ്കിലും ഒരു പച്ചപ്പ് ഉണ്ടാകും ഒരു ചെറിയ പൂന്തോട്ടവും ചെറിയൊരു പച്ചക്കറിത്തോട്ടവും എനിക്കുണ്ട് അത്യാവശ്യം നമുക്ക് വീട്ടിൽ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഉൽപാദിപ്പിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇപ്പം ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ജോലി ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ ജോലികൾകൊക്കെ പോകുന്നതു കൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് അതിന് വേണ്ടി മെനക്കെടാൻ പറ്റത്തില്ല അങ്ങനെ മെനക്കെടുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്കെക്കെ കൊടുക്കാൻ പറ്റും ഇപ്പം കാന്താരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഹോട്ടലുകളിലും മറ്റുമൊക്കെ എടുക്കാറുണ്ട് അപ്പം അതിനെയൊക്കെ നമ്മൾ നന്നായിട്ട് പരിപാലിക്കണം അതായത് കീടനാശിനികളൊക്കെ മേടിച്ച് നമ്മൾ അങ്ങനെ തളിക്കാറില്ല അതൊക്കെ നല്ല എമൗണ്ടാകും കീടനാശിനികൾകൊക്കെ അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് എങ്കിൽ പോലും നമുക്ക് അത് മേടിക്കാനുള്ള ഒരു ഇതില്ല കാരണം നമുക്ക് അതിൽ ഒന്നും കിട്ടത്തില്ല നമ്മൾ ഈ ചെയ്യുന്നതിൽ നിന്ന് ഒരു ബെനഫിറ്റും നമക്ക് ഉണ്ടാകത്തില്ല ആ കീടനാശിനി മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും കടയിൽ നിന്ന് നമുക്ക് പച്ചക്കറി മേടിക്കാമെന്ന് നമ്മൾ വിചാരിക്കും പിന്നേ ഈ നമുക്ക് ചുറ്റുപാടുമുള്ള ജൈവ വസ്തുക്കൾ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേയ്സ്റ്റ് ആണെങ്കിലും നമ്മൾ ബിന്നുകളിലൊക്കെ നിക്ഷേപിച്ചിട്ട് അതിനെ കമ്പോസ്റ്റാക്കി അത് ഉപയോഗിക്കാറുണ്ട് ഇതേ കമ്പോസ്റ്റ് വളം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെ നമ്മൾ എന്താണ് വീട്ടിൽ തന്നെ പൂന്തോട്ടമുണ്ടാക്കുന്നത് വീടിൻ്റെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അല്ലേൽ വീട്ടിൽ നിന്ന് ലഭ്യമാകുന്ന വസ്തുക്കൾ വളമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അത് ഒരു ചിലവ് കുറഞ്ഞതാണെന്ന് പറയാൻ പറ്റത്തുള്ളു എന്നാലും കുറച്ചൂ പൈസ മുടക്കിയാൽ മാത്രമേ നമുക്ക് ബെറ്റർ ഒരു റിസൾട്സ് ഉണ്ടാകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് സാധനം തന്നെയാണേലും അതൊക്കെ വിലയ്ക്ക് മേടിക്കണ്ടി വരും ഇപ്പം നമ്മൾ മുളപ്പിക്കാൻ വേണ്ടി ചകിരിച്ചോറാണേലും ചകിരിച്ചോറിന് പൈസ കൊടുക്കണം പിന്നെ അത് പാകുന്നത് സ്ഥല സൗകര്യം കുറവായിരിക്കും അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ അതിനെ പാകി നിർത്താനുള്ള ട്രേകൾ മേടിക്കണ്ടി വരും അതിന് പൈസയാകും അത് പോലെ ഗ്രോ ബാഗുകൾക്ക് നല്ല വിലയാകും ചെടിച്ചട്ടികൾ ഇതെല്ലാം പൈസ ചിലവുള്ള കാര്യങ്ങളാണ് അപ്പോൾ പൂന്തോട്ടം എന്ന് പറയുന്നത് നമുക്ക് തീരെ ചിലവ് കുറഞ്ഞതാണെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾക്ക് റീയൂസ്സ് ചെയ്യാവുന്ന ടിന്നുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നട്ടു ഇതൊക്കെ നട്ടു പിടിപ്പിക്കാം എന്നു മാത്രം പറയാനേ പറ്റത്തുള്ളു അല്ലാതെ നമുക്ക് വളരേ ചിലവു കുറഞ്ഞ രീതിയിൽ നമുക്കൊരു പൂന്തോട്ടം നിർമ്മിക്കാമെന്ന് വച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അതൊരിക്കലും പോസിബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം